എപ്പോഴും ഡാൻസ് എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും തന്നെ ഒട്ടുമിക്ക എല്ലാർക്കും തന്നെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കാരണം നമ്മളുടെ ഒരു മൂഡ് ചേഞ്ച് ആക്കാൻ പറ്റിയ ഒരു സാധനമാണ് നമുക്ക് എപ്പോഴും നല്ല ഹാപ്പിയായിട്ടിരിക്കാനും ഡാൻസൊക്കെ ചെയ്ത് എഞ്ചോയ് ചെയ്തിരിക്കാനും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ ഒരു താല്പര്യമുള്ള കാര്യമാണ് ഡാൻസ് ചെയ്യുന്നത് അല്ല അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ് നമ്മളുടെ ശരീരമൊക്കെ ഒന്നിളക്കി അനങ്ങിയാൽ നല്ലതാണല്ലോ പിന്നെ അത് ഒരു ഫാറ്റൊക്കെ പോവാനൊക്കെ ആയിട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നു തോന്നുന്നു അങ്ങനെ ഡാൻസൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഇടയ്ക്കൊക്കെ ഒന്ന് മേലനങ്ങുന്നത് നല്ലതാണല്ലോ പിന്നെ പിന്നെ അതൊരുപാട് നമ്മളുടെ മനസ്സിനൊക്കെ ആണെങ്കിലും ഒരു ഒരു സന്തോഷം ഒരു എഞ്ചോയ് എഞ്ചോയ്മെൻ്റാണല്ലോ ഡാൻസ് കളിക്കാനൊക്കെ എനിക്കൊക്കെയാണെങ്കിലും വളരെ ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ അപ്പം അതൊക്കെ നമുക്കൊരു എഞ്ചോയ്മെൻ്റാണ് ലൈഫിൽ ചില ചില മൊമെൻ്റ്സൊക്കെയാണല്ലോ അത് അതും പിന്നെ എപ്പോഴും നമ്മൾ ഡാൻസ് കളിക്കില്ല കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഇടയ്ക്ക് ഡാൻസ് കളിക്കുമ്പോൾ അത് നമുക്ക് വളരെ ഇഷ്ടമാണ് ആരോഗ്യമുള്ളവരായിരിക്കാനും ഹെൽപ്പ് ചെയ്യും കാരണം അത് നമ്മളുടെ നമ്മളുടെ ബോഡിക്കാണെങ്കിലും ഡാൻസിനൊക്കെ അത്യാവശ്യം നല്ലതാണ് എക്സർസൈസ് ചെയ്യുന്നതുപോലെതന്നെ അത്യാവശ്യം ഹെൽപ്പിങ്ങ് നല്ലൊരു കാര്യമാണ് ഡാൻസ് ചെയ്യുന്നതും വളരെ നല്ല എക്സർസൈസിന് തുല്യമായിട്ടൊക്കെ ഉള്ളൊരു സംഭവമാണ് നമ്മളുടെ ബോഡിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെയായിട്ട് ഡാൻസിങ്ങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബോഡി മാത്രം പിന്നെ നമ്മുടെ മനസ്സിലാണെങ്കിലും ഒരു സന്തോഷമൊക്കെയാണ് ഡാൻസ് ചെയ്യുമ്പോൾ എനിക്കാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാൻ ഞാൻ ഡാൻസൊക്കെ ചെയ്യുന്നതും കോളേജിലൊക്കെ ആണെങ്കിലും ഡാൻസും പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഒരുപാട് എഞ്ചോയ്മെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിലാണെങ്കിലും അതൊക്കെ വളരെ നല്ല എഞ്ചോയ് ചെയ്തു ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പം അങ്ങനത്തെ പ്രോഗ്രാംസ് വെക്കുന്നത് ആണല്ലോ ആകപ്പാടെയുള്ളൊരു സന്തോഷം അപ്പോൾ അതൊക്കെ വളരെയധികം എഞ്ചോയ് ചെയ്യാൻ പറ്റണ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു റിലാക്സേഷനൊക്കെയാണ് അങ്ങനത്തെ പ്രോഗ്രാംസ് അപ്പോൾ ഡാൻസൊക്കെ ചെയ്യാമെന്നൊക്കെയുള്ളത് വളരെ നല്ലൊരു ഇൻട്രസ്റ്റുള്ളൊരു കാര്യം തന്നെയാണ്

ബോഡി അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെയായിട്ടും ഡാൻസിങ്ങൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നു തോന്നുന്നു എക്സർസൈസ് പോലെതന്നെ പിന്നെ എക്സർസൈസ് ചെയ്യാൻ മടിയുള്ളവർക്ക് കുറച്ച് ഡാൻസൊക്കെ ചെയ്താണെങ്കിലും ബോഡി കുറച്ച് ഫാറ്റും കാര്യങ്ങളൊക്കെ പോകുമെന്നു തോന്നുന്നു വിയർക്കുന്നുണ്ടല്ലോ സെറ്റ് അപ്പോൾ അത്യാവശ്യം അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നു തോന്നുന്നു എന്തായാലും ഡാൻസിങ്ങ് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാ ഒന്നു കാണാൻ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കും എല്ലാവരും അപ്പം എനിക്ക് രണ്ടും ഇഷ്ടമാണ് അതേപോലെയൊക്കെ തന്നെ എനിക്ക് എല്ലാവരെക്കാളൊക്കെ എനിക്കൊരു റിലാക്സേഷൻ തരുന്ന കാര്യങ്ങളാണ് ഡാൻസിങ്ങ് ഡാൻസ് ചെയ്യുന്നതും ഡാൻസ് കാണുന്നതും ഡാൻസൊന്നും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഒന്നുകിൽ കാണുന്നു അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നു ഇത് ഒക്കെ ഇഷ്ടമുള്ളവരല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും ഒരേപോലെ എഞ്ചോയ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഡാൻസിങ്ങെന്നുള്ളത് ബാക്കിയെല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ എഞ്ചോയ് ചെയ്യാൻ പറ്റിയെന്നു വരില്ല പക്ഷേ ഡാൻസിങ്ങെന്നൊക്കെ പറയുന്നത് അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഒരേപോലെ എഞ്ചോയ് ചെയ്യാൻ പറ്റണ കാര്യമാണ്